നമ്മുടെ പിന്നെ വയനാട് ജില്ലയിൽ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിലൊന്നാണ് ലത്തീംഖാന ലത്തീംഖാനയെന്ന് പറയണത് അതായത് പിന്നെ പഠിക്കാനും ബുദ്ധിമുട്ടുള്ളവരും അച്ഛനുമമ്മയുമില്ലാത്തവർ ദാരിദ്ര്യ അനുഭവിക്കുന്ന കുട്ടികളെ ഒക്കേ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വിദ്യ പിന്നേ വിവാഹവും നടത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടൊ ലത്തിം ഖാനയിൽ അത് പിന്നേ അങ്ങനെ ചെയ്യുന്നത് കുറേ മക്കൾ പഠിക്കുന്നുണ്ട് മുട്ടിൽ ഉണ്ട് മുട്ടിലിലാണ് മെയിനായിട്ടുള്ളത് അപ്പം അവർ നല്ല രീതിയിലത് കൊണ്ടു പോകുന്നുണ്ട് ആ ഫൗണ്ടേഷൻ കൊണ്ടു പോകാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒത്തിരി മക്കൾ ക്കൊരു എന്താ പറയുക നല്ല രീതിയിൽ എത്താൻ പറ്റുന്നുണ്ട് വിദ്യാഭ്യാസം നൽകിയാൽ തന്നേ അവരെങ്കിലും രക്ഷപ്പെട്ടു പോകുമല്ലോ അതേപോലെ ജോ നീ ഇവിടെ ഒരു നമ്മുടെ വീടിൻ്റടുത്തൊരു വൃദ്ധസദനമുണ്ട് അതായത് നിർമ്മൽ ജോതിയെന്നാണ് പേര് അവിടെ ഒത്തിരി പ്രായമായ ആൾക്കാരുണ്ട് അവരവിടെ തന്നേ ഉപജീവനമെന്ന് പറഞ്ഞാൽ അവിടെ പശു ഉണ്ട് കോഴി അങ്ങനേ ഉള്ളതൊക്കേ വെച്ച് അവരവിടേ ഉപജീവനം ഇതാക്കുന്നുണ്ട് പിന്നേ നമ്മുടെ സാധാരണ ക്കാര് എല്ലാവരും ക്യാഷ് ഓക്കേ കൊടുത്ത് സഹായിക്കുന്നുണ്ടവരേ അതേപോലെ തന്നേ നമ്മുടെ ഈ മാനന്തവാടി രൂപതയിൽ ഒരു വർഷത്തിൽ അറുപത്തിയഞ്ച് വീട് വീടില്ലാത്തവർക്ക് വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അത് നടത്താറുമുണ്ട് പിന്നേ പള്ളി പള്ളികളിലുമുണ്ട് ഈ മുസ്ലിം പള്ളിക്കാരും അങ്ങനേ ചെയ്യാറുണ്ട് പിന്നെ ലൈഫ് ഇൻഷു ലൈഫ് പദ്ധതിയിൽ പഞ്ചായത്തിൽ നിന്നും നാല് നാലര ലക്ഷം രൂപയെങ്ങോ അനുവദിച്ച് കൊടുത്തിട്ട് വീടില്ലാത്ത ദാരിദ്ര രേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീടൊക്കേ വെച്ചുകൊടുക്കാറുണ്ട് അപ്പം ഇതേപോലെ ശിശു സംരക്ഷണ സ്ഥലങ്ങളുണ്ട് ഭവനം ഇല്ലാത്തവർക്ക് ഭവനം കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്താ പറയുക നമ്മുടെ ജില്ലയിൽ പിന്നേ നല്ല ജീവകാരുണ്യ പ്രവർത്തനം നല്ല രീതിയിൽ മാറ്റം വരു കൈവന്നിട്ടുണ്ട്